ഇവിടെ മലയാള മനോരമ പിന്നെ പത്രം പിന്നെ ദേശാഭിമാനി ദീപിക അതൊക്കെയാണ് വരുത്തുന്നത് നല്ല പത്രം ആണ് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അറിയാൻ പത്രം വായിക്കുന്നത് നല്ലതാണ് അതേപോലെത്തന്നെ ചാനലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യ മഴവിൽ മനോരമ പിന്നെ ഫ്ലവേഴ്സ് ഇതൊക്കെയാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്ലവേഴ്സിലൊക്കെ ആകുമ്പം കുറേ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട് കുറേ തരം എല്ലാവരും ചിരിക്കുന്ന കുടുംബത്തിനോടൊപ്പം ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല പ്രോഗ്രാങ്ങളുണ്ട് കുട്ടി കുട്ടികളും വിവിധതരം മുതിർന്നവരും കുട്ടികളും വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്നത് സീരിയൽ കാണാൻ ഇവിടെ ആർക്കും താല്പര്യം ഇല്ല പിന്നെ ഞങ്ങൾ ടി വി വാർത്തകൾ എന്ന് പറയുന്നത് പിന്നെ ന്യൂസ് എയിറ്റീൻ വയ്ക്കും പിന്നെ മാതൃഭൂമി ന്യൂസ് അതൊക്കെയാണ് വയ്ക്കുക ട്വെൻ്റി ഫോർ കേരള അതോക്കെയാണ് കേട്ടോ വയ്ക്കുക അപ്പം എല്ലാവരുടെ കയ്യിലും ഫോൺ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും ഫോണിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പത്രം വരുത്തുന്നുണ്ട് ന്യൂസ് വയ്ക്കുന്നത് വളരെ കുറവാണ് എന്നാലും ഇതൊക്കെ വയ്ക്കാൻ ഇടയ്ക്കെങ്കിലും ഈ ഇലക്ഷൻ ടൈം അങ്ങനെയുള്ള ടൈമിൽ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്